യെസ് ഹലോ ഐശ്വര്യ റെസ്റ്റോറന്റിലേക്ക് സ്വാഗതം നാടൻ ആണോ അല്ലെങ്കിൽ മോഡേൺ ഫുഡ് ആണോ ഉദ്ദേശിക്കുന്നത് യെസ് ഓക്കേ നാടൻ എന്ന് പറയുമ്പോൾ സാധാ നമ്മുടെ മീൽസ് ഇപ്പോൾ ചോറുണ്ട് അതുപോലെതന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് പലതരത്തിലുള്ള മീൻ വെറൈറ്റികളുണ്ട് കരിമീൻ പൊള്ളിച്ചത് അയല നെത്തോലി അങ്ങനെ ഉള്ളതൊക്കെയുണ്ട് നോൺ വെജ് ആണോ വെജ് ആണോ യെസ് ഓക്കേ ഇന്ന് പായസം അങ്ങനെ സ്പെഷ്യൽ വെജിറ്റേറിയൻ മീൽ ഉണ്ട് ചോറുണ്ട് മീൽസ് ഉണ്ട് യെസ് ഉണ്ട് ഉണ്ട് നോൺ വെജ് ബീഫിൻറെ തന്നെ പല വെറൈറ്റികളുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ ഡീപ് ഫ്രൈ ഉണ്ട് നോൺ വെജ് ആണെങ്കിൽ സാധാ മീൽസ് വരുമ്പം എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് യെസ് പിന്നെ ഫിഷ് ഫ്രൈക്ക് ഒക്കെ ആണെങ്കിൽ അത് ഓരോ മീൻ അനുസരിച്ചാണ് കരിമീൻ പൊള്ളിച്ചത് അത് വാഴയിലയിൽ പൊള്ളിച്ചതാണ് വരുന്നത് അതിന് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് ബീഫ് ഫ്രൈക്ക് നൂറ്റി അൻപത് ചിക്കൻ ഐറ്റം ആണെങ്കിൽ നൂറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ് ഹോം ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് അഡ്രസ്സ് പറഞ്ഞ് തന്നാ മതി ഡെലിവറി ഉണ്ട് യെസ് ഓക്കേ ബീഫ് ഫ്രൈ ആണോ കറി ആണോ എന്താ വേണ്ടേ ഫ്രൈ ആണോ യെസ് ഓക്കേ ഓക്കേ വേറെ സ്പെഷ്യൽ പായസം അങ്ങനെ സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലും വേണോ ഓക്കേ ഏത് പായസം ആണ് വേണ്ടത് വെറൈറ്റി ഓഫ് പായസം പാലട ഉണ്ട് സേമിയോ ഏതാണ് വേണ്ടത് പാലട ഓക്കേ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ യെസ് ഓക്കേ താങ്ക്യൂ